ഇപ്പോൾ മീന് ഒക്കെ നമ്മളിപ്പോൾ കടലിൽ നിന്നൊക്കെ പിടിച്ചിട്ട് കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കാപ്പാട് അല്ലെങ്കില് ബീച്ച് ആ അതിൻ്റെ സൈഡിൽ നിന്നാണ് അവര് എന്താ പറയുക ഹാർബറില് കയറ്റി കൊണ്ട് വരുന്നത് പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് സ്ത്രീകള് അവരെ സഹായിക്കുന്നത് എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് മത്സ്യം അതായത് വണ്ടിയില് കയറ്റി കൊണ്ട് വരുന്ന സമയത്ത് അതായത് ബോട്ടില് കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക തുറയിലേക്ക് അടുപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അവിടുന്ന് കൂടുതലായിട്ടും അവര് അവിടുന്ന് ഇത് കൊട്ടയിലാക്കി അത് തരം തിരിച്ച് വയ്ക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവര് സഹായിക്കാറുണ്ട് അതായത് ചെറിയ മീനും വലിയ മീനും എല്ലാം തരം തിരിച്ച് വയ്ക്കുക ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങള് മീനിനെന്തെങ്കിലും പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി വേറെ ഇതാക്കി ഇടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ത്രീകളാണ് പൊതുവേ ചെയ്യാറ് അപ്പോൾ മ മത്സ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവര് ഇതിപ്പോൾ ലേലത്തിന് എടുത്തിട്ട് എന്താ പറയുക മാറ്റി വിൽക്കാനും കാര്യങ്ങളൊക്കെ കൂടുതലും സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത് ഈ ആണുങ്ങള് പൊതുവേ അവിടുന്നു പിടിക്കാറ് ഉള്ളതാണ് പതിവെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അപ്പം അതായത് ചെയ്യാറുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള സ്ത്രീകള് കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട്